ഹലോ എഡ്വീന് മൊബൈല് ഷോപ്പ് ആണ്ട്രോയിഡ് സെറ്റാണൊ മാഡം ഉദ്ദേശിക്കുന്നത് റേഞ്ചെങ്ങനാണ് പ്രൈസ് റേഞ്ച് ഓക്കെ ഇപ്പോൾ നമ്മൾ ഫോര് ജിയൊക്കെ കഴിഞ്ഞ് ഫൈ ജി ആയല്ലോ അപ്പോൾ ഫൈ ജീയാണൊ ഉദ്ദേശിക്കുന്നത് അതോ ആ ഫൈ ജിയൊണ്ട് ഫൈ ജിയാണല്ലൊ ഇപ്പോൾ ലേറ്റസ്റ്റ് ഫൈ ജിയാണൊ ഉദ്ധേശിക്കുന്നത് ആ റേറ്റ് റേഞ്ച് എങ്ങനെയാണ് എന്നാണ് പറഞ്ഞത് കമ്പനി ഏതെങ്കിലും സെര്ച്ച് ചെയ്യുന്നുണ്ടോ ഇവിടിപ്പോൾ നമുക്ക് കൂടുതലും പോകുന്നത് സാംസങ്ങാണ് ആന് ആണ്ട്രോയിഡാകുമ്പോഴത്തേക്ക് ലാവയൊണ്ട് പിന്നെ ഔ റെഡ്മിയൊണ്ട് അങ്ങനെ കുറെ മിക്കവാറും അവൈലബിള് ആയിട്ടുള്ള എല്ലാം ഉണ്ടിവിടെ അതൊ ഇനി ആപ്പിളാണൊ ആപ്പിള് ആണ്ട്രോയിഡായോണ്ടാണ് ഞാന് ആപ്പിളിന്റെ കാര്യം പറയാഞ്ഞത് ആപ്പിളും ഉണ്ടിവിടെ

സാംസങ്ങ് നമുക്ക് എണ്ണായിരം രൂപ മുതല് മുകളിലേക്കൊണ്ട് ഒരുലക്ഷം രൂപക്കടുത്തുവരുന്നുണ്ട് ഫൈവ് ജിയാണ് അതിൽ ധാരളം ഫ് ആ ഇ എം ഐ എടുക്കാനൊക്കെ എങ്ങനാണുദ്ദേശിക്കുന്നത് ബാങ്ക് വഴിയാണൊ അതൊ ഏതെങ്കിലും ധനകാര്യസ്ഥാപനം വഴി അല്ല അതുപോലെയുള്ള സ്വകാര്യ മഹീന്ദ്ര പോലുള്ളന്തെങ്കിലും അതാണോ ഉദ്ദേശിക്കുന്നത് ആ ഓക്കെ ഓക്കെ അതിനുള്ള അതിനുള്ള സംവിധാനം ഇവിടുണ്ട് നമ്മളവരുമായിട്ട് ടൈ യപ്പാണ് ആത് നമുക്ക് രണ്ട് പതിമൂന്ന് ശതമാനം മുകളിൽ മുകളിലേക്കാണ് അതിന് പലിശ വരുന്നുണ്ട് അപ്പം നമ്മൾ മാസം തവണ കുറയുന്നതനുസരിച്ച് പലിശയിലും വ്യത്യാസമുണ്ടാകും അതനുസരിച്ച് മാഡത്തിന് തെരഞ്ഞെടുക്കാം നമുക്ക് ഷോപ്പില് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളക്കെ കാണിച്ച് തരാം ഷോപ്പ് നമ്മുടെ കാറ്കുട്ടയിലാണ് കരുവാറ്റയിലാണ് ഇവിടെ എത്തുക എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ നാട്ടുകാര്ക്ക് പ്രശ്നം ഇല്ലാത്തോണ്ട് നമ്മളിങ്ങനന്നെ കിടക്കുന്നു നാട്ടുകാരെന്തെങ്കിലുവൊക്കെ ബഹളം വെച്ചിരുന്നെങ്കിൽ ന ഭരണാധികാരികള് എന്തെങ്കിലും ചെയ്തു തന്നേനെ പക്ഷേ നമുക്കിപ്പം ഇവിടെ മൊബൈല് ഷോപ്പ് കൊണ്ട് ഈ ലോക്കാല്റ്റിയൊള്ള ഇത് മാത്രമേ ഉള്ളൂ പിന്നെ വാടകക്ക് വേണം എന്നുണ്ടെങ്കില് ആ നമുക്ക് അതിന്റെ അവൈലബിളിറ്റീ ഇ എം ഐ സ്കീമുകളക്കെ പറയാം പിന്നെ മൊബൈലിന്റെ സ്പെസിഫിക്കേഷന് കാണിച്ച് തരാം അപ്പോൾ അതനുസരിച്ച് ഇഷ്ട്ടമുള്ളത് തെരഞ്ഞെടുക്കാം ആ ശരി നമ്പര് കൊടുത്തോളൂ ഓക്കേ ശരിയന്നാൽ നന്ദി